കുറേ ആരാധനാലയങ്ങൾ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം പള്ളികളായിക്കോട്ടെ അമ്പലങ്ങളായിക്കോട്ടെ മുസ്ലിം പള്ളികളായിക്കോട്ടെ എല്ലാ വളരെ മനോഹരമായിട്ടുള്ള അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഉള്ളൊരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളാണ് ശബരിമല ചോറ്റാനിക്കര അതേമാതിരി ഗുരുവായൂരൊക്കെ അതേപോലെ തിരുവനന്തപുരത്തുള്ള സ്ഥിതിചെയ്യുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ അപ്പോൾ ഇവിടെയൊക്കെ വേറേ പുറത്തുള്ള സംസ്ഥാനത്തിൽനിന്നും ആൾക്കാര് വരാറുണ്ട് അങ്ങനെ വളരെ അതേമാതിരി ഈ അമ്പലങ്ങളൊക്കെ ദേവസ്വത്തിൻ്റെ കീഴില് വരുന്നതാണ് ഇത് എല്ലാ ദിവസവും നല്ല തിരക്കും ആൾക്കാരൊക്കെ കാണാനും വരാറുണ്ട് പിന്നെ എന്ന് പറയണത് ഈ അമ്പലങ്ങളിലൊക്കെ ഇതേപോലെ പ്രസാദ ഊട്ടും ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഗുരുവായൂർ ആണെങ്കിലും രാവിലെ തൊട്ട് രാത്രി വരെ പല നേരത്തായി ഭക്ഷണങ്ങള് ഭക്ഷണം കൊടുക്കാറുണ്ട് പിന്നെ മുസ്ലിം പള്ളികളെന്ന് പറയുമ്പോൾ കുറേ പൊന്നാനിയിലൊക്കെ ഫേമസ് ആയ പള്ളി പള്ളികളുണ്ട് പിന്നെ അതേമാതിരി പള്ളികളോട് പള്ളികളോടൊപ്പം തന്നെ അടുത്ത് തന്നെ യതീംഖാനകളുണ്ടാവാറുണ്ട് അവിടെ ഈ പേരൻസ് ഒന്നുമില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കാനും അവർക്ക് ഫുഡ് കൊടുക്കാനും അവരെ വളർത്താനായിട്ടൊക്കെയാണ് ഈ യതീംഖാനകളുള്ളത് പിന്നെ വേറെ ക്രിസ്ത്യൻ പള്ളികളെന്ന് പറയുമ്പോൾ ഈ ഈ എറണാകുളത്തുള്ള പള്ളികളും അതേമാതിരി കോട്ടയത്തൊക്കെ ധാരാളം പള്ളികളുണ്ട് പിന്നെ പുരാതനമായ പള്ളികളും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടത്തെ ആ ബിൽഡിങ്സൊക്കെ ആണെങ്കിലും തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ബിൽഡിങ്സൊക്കെ ആണ് പിന്നെ അവിടൊക്കെ പള്ളി പെരുമ പള്ളി പെരുന്നാളും ഒക്കെ നടത്തുമ്പോഴും നല്ല ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട്